എനിക്ക് ഒരു സഹോദരനാണ് ഉള്ളത് ഞാനും അവനും തമ്മിൽ ഏഴ് വയസ്സിൻ്റെ വ്യത്യാസമാണ് ഉള്ളത് ഞങ്ങൾ തമ്മിലുള്ള സാമ്യതകളും പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും പെട്ടന്ന് ദേഷ്യം വരും പെട്ടന്ന് എന്താ പറയുക പെട്ടന്ന് ദേഷ്യം വരും പെട്ടന്ന് സന്തോഷിക്കും പെട്ടന്ന് കരയും അങ്ങനെ രണ്ട് പേരും ഒരേ സാമ്യക്കാരാണ് വ്യത്യസ്ഥ എന്ന് പറയുമ്പോൾ നോക്കുവാണോന്ന് വച്ചാൽ അവനായിക്കോട്ടെ എനിക്കെപ്പോഴും എല്ലാ ഭക്ഷണം അല്ലെങ്കിൽ എല്ലാ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ സ്നാക്സും മറ്റ് കാര്യങ്ങളും എല്ലാർവക്കും കൊടുക്കാനാണ് എനിക്ക് ഒരുപാട് താൽപര്യം പക്ഷെ അവനായിക്കോട്ടെ അവനൊറ്റക്കിരുന്ന് കഴിക്കാനാ താൽപ്പര്യം എനിക്ക് ആ ഒരു സ്വഭാവം അവനിൽ ഇഷ്ട്ടമേ അല്ല അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം അവനുണ്ട് പിന്നെ വേറൊരു വ്യത്യാസമെന്ന് പറയുമ്പോൾ അവനെല്ലാം അവന് തന്നെ വേണം ആ ഒരു സ്വഭാവമാണ് പിടിവാശി കുറച്ച് കൂടുതലാണ് അപ്പോഴും ഞാനാണ് കുറച്ചുകൂടി വിട്ട് കൊടുക്കാറുള്ളത് അങ്ങനെ ഉണ്ട് പിന്നേയും ഒരുപാട് സാമ്യതകൾ ഉണ്ട് ഇപ്പോൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരേ ഇഷ്ട്ടങ്ങളും ചില കാര്യങ്ങളക്കെ നോക്കുകയാണെന്ന് വച്ചാൽ ഒരേ ഇഷ്ടങ്ങളും ഒരേ താൽപര്യങ്ങളൊക്കെ ആണ്